ആ സൗണ്ട് കുറവാണെ ഉം ആ ചേച്ചി എന്തൊക്കെ ഉണ്ട് കടയില് കഴിക്കാനായിട്ട് ആ എന്താന്ന് വെച്ചാലെ ഞങ്ങളിപ്പം ഞങ്ങളെ ഞങ്ങള് ഞാൻ ഒറ്റ അല്ല കുറച്ച് പേരുണ്ട് ദൂരെന്ന് വരികയാണേ ഇവിടെ അമ്പലത്തില് വന്നതാണ് അപ്പോൾ ഒരു ഒരു മണിക്കൂറ് കഴിയുമ്പത്തേക്ക് ഒര് പത്ത് പേരുണ്ടാവും അവർക്ക് കഴി പത്ത് പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാകുമല്ലൊ അല്ലേ ആ ഇപ്പോൾ ഏകദേശം എട്ടര ആ പത്തുമണിയൊക്കെ ആകുമ്പത്തേനും എത്തും അപ്പോഴേക്കും റെഡിയാക്കി വെക്കാൻ പറ്റുമോ ആ പത്ത് പേർക്ക് കഴിക്കാനായിട്ട് എന്തുണ്ടാകും അത്രം ഐറ്റം എന്ന് പറയുമ്പോൾ അപ്പോൾ കുട്ടികളും ഉണ്ടെ അപ്പം അതനുസരിച്ച് എന്താ വില വരിക

ആ ഓക്കെ ഞങ്ങൾ ദോശയും ഇടിയപ്പവും മതിയാകുമായിരിക്കും എല്ലാവരും കൂടുതല് അതായിരിക്കും കഴിക്കാൻ സാധ്യത ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിച്ചോളാം കേട്ടോ പാർസൽ അല്ല കേട്ടോ ആ ഞങ്ങള് വരുന്ന വഴിക്ക് കുറെ കടകളൊക്കെ നോക്കി അപ്പോൾ ഒന്നും അത്ര സുഖമായിട്ട് തോന്നിയില്ല ഇത് ഇപ്പോൾ വീട്ടിലെ ഊണ് ചായ എന്നെഴുതി വെച്ചത് കൊണ്ട് കയറിയതാണ് ആ നിങ്ങള് ആ വീട്ടിൽ നിങ്ങള് വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുവാണോ ആ അപ്പം പഴ ഓ ഇന്നലത്തെ ഒന്നും അല്ലേ എന്താ വെച്ചാൽ ഇപ്പോൾ കുറെ എന്താന്ന് വെച്ചാൽ ഇപ്പം ന്യൂസിലൊക്കെ ഭക്ഷണം കഴിച്ച് അവര് മരിച്ച് ശർദ്ദി അങ്ങനെ ഒക്കെ വന്നുവെന്ന് കേൾക്കുന്നത് കൊണ്ടേ പുറത്ത് ഇറങ്ങുമ്പം ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ അപ്പം ശരി ചേച്ചി അപ്പോൾ റെഡിയാക്കി വെച്ചോണെ ഞാനൊരു പത്ത് മണി കഴിയുമ്പോത്തേക്ക് എന്റെ ആ ഓകെ എന്നാൽ